ഞങ്ങൾ പ്രായമുള്ളവർ കളിക്കുന്ന കളിയെന്ന് പറഞ്ഞെങ്കിൽ കേരം ബോർഡ് കേരം ബോർഡെന്നു പറഞ്ഞെങ്കിൽ എല്ലാ നാല് ഭാഗങ്ങളിലും നാല് സ്ത്രീകൾ ഇരുന്ന് പിന്നെ നമുക്ക് ചൊട്ടുക അത് ഒരു രസകരമായൊരു കളിയാണ് അതു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷട്ടിൽ കളിക്കും കാരണം ഷട്ടിലെന്നു പറഞ്ഞാൽ നമ്മൾക്ക് രാവിലേയും വൈകുന്നേരം രാവിലെ നമ്മൾക്ക് സമയം ഉണ്ടാകില്ല വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം നമ്മളെല്ലാവരും കൂടി പോയി ഷട്ടിൽ കളിക്കാറുണ്ട് കാരണം പ്രായം ഉള്ളവർക്ക് ഒരു നല്ല ഒരു ഇതാണ് കാരണം കാരണം നമ്മളെ ജീവിതത്തിൽ പ്രായം ആയവർ ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടി നിൽക്കുകയെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അമ്മമാർ എല്ലാവരും അമ്മമാരാണ് അച്ഛന്മാരാണെങ്കിലും അവർക്ക് എന്നും ഈ വീട്ടിലിരുന്നിട്ട് ടി വി ടി വി ഇപ്പോഴും എല്ലാവർക്കും മടുക്കും ഇപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ടി വിയിൽക്കൂടി കാണാം അതുകൊണ്ടുതന്നെ നമുക്ക് ഒരു കളി നമ്മളാരും ഇങ്ങനെ വീട്ടിൽ തടിഞ്ഞുകൂടി ഇരിക്കുന്നതിനെക്കാളും നല്ലത് ഷട്ടിൽ കളിക്കുകയാണ് അതാണ് ഏറ്റവും നല്ല കളി ഷട്ടിൽ തന്നെ ആണ്